ആ ചേച്ചി നമസ്ക്കാരം ഞാൻ ടാറ്റാ ഡി റ്റി എച്ന്നാണെ ഇൻസ്റ്റാളിങ്ങിൻ്റെ ഇതിന് വിളിച്ചിട്ടുണ്ടായില്ലേ ഇന്നലെ ആ അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് ഇന്നലെ കുറച്ച് തിരക്ക് പെട്ടു അപ്പോൾ വേറെ രണ്ട് മൂന്ന് ആളെടുത്തുകൂടി ഇതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയി അതാണ് ഇന്നലെ വരാൻ പറ്റാണ്ട് ആയത് ഓക്കേ അതെ ഇതിപ്പോൾ നമുക്കിപ്പോൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ വീടിൻ്റെ മുകളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം ഇനി ഈ തെങ്ങ് മരങ്ങൾ ഒന്നും ഇല്ലാത്ത ഏത് ഭാഗത്താണ് ആ വെട്ടേണ്ടി വരും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ ഈ മാങ്ങ മരത്തിൻ്റെ ഈ കൊമ്പ് വന്നൊക്കെ വെട്ടേണ്ടി വരും ആ വെട്ടേണ്ടി വരും അതൊന്ന് വെട്ടി വൃത്തിയാക്കിയാ മതി ഇവിടെ വെക്കുന്നതിന് കുഴപ്പം ഇല്ലാലോ ഇത് വെട്ടിയാൽ കുഴപ്പം ഇല്ലാലോ ഇനി വേറെ മാറ്റി വെക്കണോ ആ അപ്പോൾ അത് വെട്ടിയാൽ മതി ആളെ വിളിച്ച് ആ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഈ കൊമ്പ് ഈ ഒരു കൊമ്പ് മാത്രം വെട്ടിയാൽ മതി കറക്റ്റ് സാറ്റലൈറ്റ് കിട്ടുന്ന പോലെ സിഗ്നൽ കിട്ടും

എങ്ങനെയാണോ തരിക നമുക്ക് കയ്യിൽ തരുവാണോ അതോ കൊടുത്തിട്ടുണ്ടായിരുന്നോ നേരത്തെ ഇവര് വിളി അതെ ഇവര് വിളിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ നേരത്തെ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ അതെലെ അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണ് കൊടുത്താൽ മതി കമ്പനിക്ക് കൊടുക്കുവാണെൽ അങ്ങനെ അല്ലേൽ എനിക്ക് തന്നാൽ ഞാൻ വഴി ത്രൂ കൊടുക്കുവാണേൽ അങ്ങനെ ചെയ്യാം അത് കുഴപ്പം ഉള്ളതല്ല ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാംല്ലേ അതെ ഇതിപ്പോൾ നമ്മളെ വിളിച്ചാലും മതി അല്ലേ കമ്പനിക്ക് കസ്റ്റമർ കെയർ നമ്പർക്ക് വിളിച്ചു പറഞ്ഞാൽ നമ്മള് കറക്റ്റ് ആ ആറ് മാസം കൂടുമ്പോ ഒന്ന് സർവീസ് ഉണ്ടാവും ഫ്രീ സർവീസ് പോലെ എല്ലാവരുടേയും ചെക്കിങ്ങിന് വരും ആറ് മാസം കൂടുമ്പോൾ എല്ലാ വീടുകളിലും ഇത് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ വീടുകളിലും നമ്മൾ സർവീസ് ഒന്ന് മൈൻ്റനൻസ് ചെക്ക് ചെയ്യും അതെ പോലെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ഡെയിലി എന്തെങ്കിലു കംപ്ലൈൻറ് വരുകയോ സിഗ്നൽ കിട്ടണ്ടാവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കമ്പനി ടോൾ ഫ്രീ നമ്പറാണ് എപ്പോൾ വിളിച്ചാലും കിട്ടും അപ്പോൾ ആ വീക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ആ ടൈമിൽ ഞങ്ങൾ വന്നിട്ട് ചെയ്ത് തരുന്നതായിരിക്കും അതെ റീചാർജ് ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ആയത് കൊണ്ട് തന്നെ നമുക്ക് ആറ് മാസത്തെ ഫ്രീ ആയിട്ട് ആറ് മാസം നമുക്ക് കിട്ടും ചാനലുകളൊക്കെ ആ ഫ്രീ ആയിട്ട് അത് ഈ മൂവായിരത്തിൽ വരും മൂവായിരത്തില് ഈ ഇൻസ്റ്റാളഷൻൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആറ് മാസം കിട്ടും ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടാറ്റാ ഡി ടി എച് ചേർന്ന ആ ഈ ടാറ്റാ ഡി ടി എച് തെരഞ്ഞെടുത്ത കൊണ്ട് നമ്മൾ കമ്പനി കൊടുക്കുന്ന ഇതാണ് ആനുകൂല്യം ആണ് ഇത് ആറ് മാസം അത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങള് പിന്നെ സാധാ റീചാർജ് ചെയ്യുന്ന പോലെ ഇരുന്നൂറ്റി പത്ത് രൂപ എന്തോ റീചാർജ് അത് ഓരോ പ്ലാനിന് അനുസരിച്ച് മലയാളം ചാനൽ മാത്രമാണെങ്കിൽ ഒരു പ്ലാന് പിന്നെ സ്പോർട്സ് എല്ലാം കിട്ടുവാണെങ്കിൽ അതിനൊരു പ്ലാന് അങ്ങനെയാണ് അടുത്ത പ്ലാൻ വരുന്നേ അപ്പോ അത് നിങ്ങക്ക് എങ്ങനെയാണ് താല്പര്യമുള്ളത് അതിന് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത ചെയ്താൽ മതി ആ ഓക്കേ ഇനി വേറെ എന്തെങ്കിലും ഡൌട്ട് ഇണ്ടോ സംശയം

അതെ അതെ ആ അതെ അതെ അതെ അതെ അപ്പോൾ ആ ഇത് ഇത്രയേ ഉള്ളു നിങ്ങൾക്കിത് പേയ്മെന്റ് നിങ്ങൾ കമ്പനിക്ക് ഡയറക്റ്റ് അയച്ചാലും മതി ആവും ഞാൻ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ ആ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കേ പേയ്മെന്റ് അയച്ചോളു ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ചാനൽ ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ വന്നിട്ട് സെറ്റ് ചെയ്ത് തരാം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കേ റെഡി ശരി